മത്സ്യബന്ധനം മൂലം മത്സ്യത്തിൻ്റെ ആവാസവ്യവസ്ഥയിലാണ് കോട്ടം സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരുപാടൊന്നും മത്സ്യമില്ലാത്ത സമയത്ത് നമ്മുടെ മത്സ്യബന്ധനം കൂടുകയും അത് അതുമൂലം ഇപ്പം അധികം മത്സ്യമൊന്നും ഇല്ലെങ്കിലും അത് ഒരുപാട് വിലയിലാണ് നൽകുന്നത് അപ്പം പരിസ്ഥിതിക്കെന്ന് വെച്ചാല് ജലമലിനീകരണം ഇപ്പോള് ഒരുപാടുണ്ട് അപ്പോള് മത്സ്യത്തിന്റെ കുറവ് കാരണം ജലമലിനീകരണമുണ്ടാകും അവ അവയ്ക്ക് വേണ്ട ആഹാരം കഴിക്കാതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കടലിലായാലും പുഴയിലായാലും മത്സ്യങ്ങളെ പിടിക്കുമ്പോള് തന്നെ അവരുടെ ആവാസവ്യവസ്ഥയിലും ആവാസവ്യവസ്ഥയും മാറിക്കൊണ്ടിരിക്കും അതുപോലെതന്നെ മത്സ്യങ്ങൾ ഇല്ലാതായി വരുന്നു അവയുടെ ഇല്ലായ്മയാണ് കാണിക്കുന്നത് അതുപോലെതന്നെ ഇപ്പോള് കാണാന് പറ്റുന്നത് ഒരുപാട് ജലമലിനീകരണം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുമൊക്കെ പുഴയുടെയരികില് കൊണ്ടുപോയി ഇടുകയും അതുപോലെ മണല് വാരുന്നതുമൊക്കെ പിന്നെ വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടാകാനും കാരണമാകുന്നു ഇപ്പോള് ഒരുപാട് മണൽ വാരുന്നത് ഇതൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാര് കാണാതെ തന്നെ പുഴയിൽ നിന്നും മണല് വാരുന്നുണ്ട് ഇത് വെള്ളപ്പൊക്കമുണ്ടാകാനും അതുപോലെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകാനും കാരണമാകുന്നുണ്ട് അതുപോലെതന്നെ മീനുകൾ ഇല്ലാത്ത ഇല്ലാത്ത സമയത്ത് മീൻ വിൽപ്പന ചെയ്യുന്നത് ഭയങ്കരം വിലയിൽ വില കൂട്ടിയിട്ടാണ് മീന് വിൽക്കുന്നത് അല്ലെങ്കില് മീനുള്ള സമയം അത് ഒരുപാട് വിഷാംശങ്ങളൊക്കെ നിറഞ്ഞൊരുപാട് മുന്നേയുള്ള മീനുകളാണ് വിഷാംശം നിറച്ച് പുതിയത് പോലെയാക്കിയിട്ടാണ് വിൽക്കുന്നത് അത് മനുഷ്യർക്കും ദോഷകരമാണ് ഇതുപോലെ ജലമലിനീകരണമെന്ന് പറയുമ്പോള് പ്ലാസ്റ്റിക് അതൊക്കെ ഇടുമ്പോള് അത് പിന്നെ ഇപ്പോള് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴൊരു ഫോട്ടോ കണ്ടിരുന്നല്ലോ ആന പ്ലാസ്റ്റിക് തിന്നുന്നത് അതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോള് പുഴയിലും പുഴകളിലും കടലിലുമൊക്കെ ഉണ്ടാകുന്നത്